നർത്തകര് സമൂഹത്തില് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ തന്നെ അവര് നല്ല നല്ല ഉയർച്ചകളിലേക്ക് പോകുന്നുണ്ട് പക്ഷെ എന്നെ പഠിപ്പിച്ച ഒരദ്ധ്യാപകൻ ഒരദ്ധ്യാപിക നല്ലൊരു നർത്തകിയാണ് അവരാണ് എൻ്റെ ആദ്യത്തെ ഗുരു അങ്ങനെ ഞാന് ഡാൻസ് അവരിൽ നിന്ന് പഠിക്കുകയും ആ ടീച്ചറിൻ്റെ സാന്നിധ്യത്തിൽ ഒരുപാട് പേരെ ടീച്ചര് പഠിപ്പിക്കുകയും ചെയ്തു അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളില് പെട്ടെന്നാണ് ടീച്ചറിനൊരു അസുഖം വരുന്നതും ടീച്ചറിൻ്റെ ശരീരത്തിലേക്ക് ക്യാൻസറെന്ന രോഗം പിടിപെടുകയും ചെയ്തു ടീച്ചര് ഒരു പാവപ്പെട്ട വീട്ടിലെ ആയിരുന്നു പക്ഷെ ടീച്ചറിൻ്റെ ഒരു ഉപജീവനമാർഗ്ഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡാൻസ് ക്ലാസ്സിലൂടെ കിട്ടുന്ന വരുമാനമായിരുന്നു കാലക്രമേണ ടീച്ചറിന് ഈ അസുഖങ്ങള് മൂർഛിച്ചപ്പോള് ടീച്ചറിൻ്റെ ക്ലാസ്സിലേക്ക് പിള്ളാരെ വിടാതായി ടീച്ചര് വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ടീച്ചര് പോവുകയുണ്ടായി ഞങ്ങളൊക്കെ പോയി കണ്ട് വളരെയധികം സങ്കടം നിറഞ്ഞൊരവസ്ഥയായിരുന്നു പിന്നീട് പല സംഘടനകള് ടീച്ചറിന് വേണ്ടി പല രീതിയിലും പൈസകളൊക്കെ പിരിച്ച് ടീച്ചറിനെ സഹായിക്കുന്നതൊക്കെ ഒരു പ്രവണതയിലേക്കു വന്നു അങ്ങനെ കുറേയൊക്കെ അവര് സഹായിച്ചു പക്ഷെ ടീച്ചറിൻ്റെ രോഗം ടീച്ചറിനെ പിടി വിട്ടില്ല ടീച്ചർ വളരെയധികം രോഗത്തോട് മല്ലടിച്ചിട്ടും ടീച്ചര് ചെറിയ രീതിയിൽ പോലും കൊച്ചു കുട്ടികളെ ഇരുന്നു കൊണ്ട് പറഞ്ഞു കൊടുക്കുകയും ചെറിയ രീതിയിലൊക്കെ ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാമോന്നുള്ള ധാരണയില് ചെയ്തെങ്കിലും അത് ഫലവത്തായില്ല ആ ടീച്ചറിൻ്റെ കഷ്ടപ്പാട് കണ്ടപ്പോൾ ഞങ്ങളോർത്തു ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്കൊന്ന് സഹായിക്കാമോ എന്നന്വേഷിച്ച് ഞങ്ങള് പല സംഘടനക്കാരെ കണ്ടുപിടിച്ചു അങ്ങനെ അവരൊക്കെ സഹായിച്ചെങ്കിലും പൂർവാധികം ശക്തിയോടെ ടീച്ചര് തിരിച്ച് ജീവിതത്തിലേക്ക് വരാനായിട്ട് സാധിച്ചില്ല കാരണം ടീച്ചറിനെ ആ രോഗം വളരെയധികം കീഴ്പ്പെടുത്തിയിരുന്നു അവസാനം ടീച്ചര് മരണത്തോട് മല്ലടിക്കുന്ന കാലഘട്ടത്തിലും ടീച്ചറിന് കൈത്താങ്ങായിട്ട് ടീച്ചര് പഠിപ്പിച്ച ചില കുട്ടികളാണ് കൂടെ ഉണ്ടായിരുന്നത് കാരണം ഭർത്താവ് ഉപേക്ഷിച്ച് പോയി പക്ഷെ ടീച്ചറിൻ്റെ ആ കാലഘട്ടത്തില് ടീച്ചറിനോടൊപ്പം നിൽക്കുകയും ടീച്ചറിൻ്റെ അന്തിമ യാത്രയിലും ആ കുഞ്ഞുങ്ങള് ടീച്ചറിന് ഗുരുദക്ഷിണയായിട്ട് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഇന്നും ഞങ്ങള് കണ്ണീരോടെ ഞങ്ങളുടെ അധ്യാപികയെ ഓർക്കുന്നുണ്ട്